ഇവിടെന്തൊക്കെയാ ഫുഡാ കിട്ടുക നാടൻ ഫുഡൊക്കെ ഓ നമുക്കിപ്പോൾ സാധാരണ നമ്മൾ നാച്ചുറലായിട്ടീ തൊടിന്നൊക്കെ പറിക്കണ ഇലകൾ തണ്ടുകൾ ആ അങ്ങനത്തെ ഫുഡ് അറേഞ്ച് ആ

ആ എനിക്ക് ഉണ്ട് അപ്പം ഞാൻ ഇവിടന്ന് അവിടെ കിട്ടുവാണെങ്കിൽ ഇവിടെന്ന് കഴി ഇവിടെന്ന് ഓർഡർ ചെയ്യാന്നുവെച്ചാണ് ഇങ്ങട്ട് വന്നത്

അങ്ങനത്തെ ആ നല്ല അമ്മീമ്മേട്ടരച്ച് ഇടിച്ച് പൊടിച്ച ആ

ആ ഈ ഓണത്തിനും പെരുനാക്കും ഒക്കെ നിങ്ങളെന്താണ് ഇവിടെ പിരി

പായസമോ പായസൊക്കെ എത്രവിധം ഉണ്ടാകും പിന്നെ ഈ ഓണ ഓണത്തിന് പായസമൊക്കെ എത്രവിധം ഉണ്ടാക്കും ആ എടക്കിണ്ടാക്കും

പിന്നെ പെരുനാൾക്കെന്താണ് ആ ആ ആ എന്നാൽ ആയിക്കോട്ടെ ശരി